മലയാളം സംസാരിക്കുന്നത് അല്ലെങ്കിൽ മലയാള ഭാഷ സംസാരിക്കുന്നത് നമുക്ക് അഭിമാനം തോന്നുന്നൊരു കാര്യം തന്നെയാണ് കാരണം മാതൃഭാഷ മലയാളം എന്ന് പറയുന്നത് നല്ല അഭിമാനത്തോടുകൂടി പറയാവുന്നൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയിലെ തന്നെ സിക്സ്ത് പൊസിഷനിലാണ് മലയാളഭാഷ ഭാഷയ്ക്കുള്ളത് ലോകത്തിലെതന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു നാലുകോടിക്ക് മേലെ ആളുകൾ മലയാളം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഒരു ഞാനൊരു മലയാളിയാണെന്ന് പറയാൻ തന്നെ എനിക്ക് അഭിമാനമെ ഉള്ളു പിന്നെ ഇഷ്ടമുള്ള വാക്കുകൾ മലയാളത്തിൽ എന്നു പറയുമ്പോൾ മലയാളം സോങ്സൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എസ്പെഷ്യലി ഓൾഡ് സോങ്ങ്സ് നയൻ്റീസ് കിഡ്സ് ആയതുകൊണ്ടുതന്നെ ആ തൊണ്ണൂറുകളിലെ പാട്ടുകളും പഴയ ഓൾഡ് മലയാളം സോങ്സൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതിലത്തെ വരികളും വാക്കുകളും എല്ലാം പ്രത്യേകതയാണ് എല്ലാത്തിനും ഇതിലത്തെ പുതിയ സോങ്സിനെ വച്ചു നോക്കുമ്പോൾ പഴയ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം പിന്നെ മലയാളം ഇപ്പോൾ കേരളത്തിൽതന്നെ മലയാളം എന്നുതന്നെ പറയുമ്പോൾ മലയാള ഭാഷയെന്നു പറയുമ്പോൾതന്നെ ഓരോ ജില്ലയിൽ ഓരോ സ്ലാങ്ങാണ് ഇപ്പോൾ കണ്ണൂർ ഒരു സ്ലാങ്ങാണ് കോഴിക്കോട് വേറൊരു രീതിയാണ് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോട്ടയം അങ്ങനെ ട്രിവാൻഡ്രം അങ്ങനെ ഓരോരോ നാട്ടിൽ ഓരോരോ ഡിഫറൻ്റ് രീതിയാണ് സ്ലാങ്ങുകൾ എനിക്ക് കൂടുതലിഷ്ടം കോഴിക്കോട് കണ്ണൂർ അങ്ങനത്തെ സ്ലാങ്ങ് അവിടത്തെ സ്ലാങ്ങൊക്കെയാണ് കൂടുതലിഷ്ടം ഞാനൊരു തൃശ്ശൂരുകാരിയാണ് പക്ഷെ എന്നാലും എനിക്ക് കൂടുതലും കണ്ണൂർ കോഴിക്കോട് അവർ മലയാളം പറയണ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം അങ്ങനെ മലയാളം എല്ലാടത്തും ഫേമസാണ് ഏത് ഫോറിൻ കൺട്രീസിൽ പോയാലും മലയാളികളില്ലാത്ത നാടില്ല ഏറ്റവും കൂടുതൽ മുക്കിലും മൂലയിലും ദുബായിൽ പോയാലതിപ്പം മലയാളികളാണ് എല്ലായിടത്തുള്ളത് അതുപോലെ ഫോറിൻ ഫോറിനേഴ്സ് ആര് നാട്ടിൽ വന്നാലും ഫസ്റ്റ് അവർ പെട്ടെന്ന് പഠിക്കും മലയാളം മലയാളികളെേക്കാളും കൂടുതൽ നന്നായിട്ട് ഫോറിനേഴ്സ് സംസാരിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ മാതൃഭാഷ മലയാളം എന്നു പറയാൻ എനിക്ക് അഭിമാനമേ ഉള്ളു ലോകത്തിൽതന്നെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നു അതുകൊണ്ടുതന്നെയാണ് മലയാളം പിന്നെ കുട്ടികളൊരു മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒരു അങ്ങനെയൊരു രണ്ടു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ചേർക്കുന്നത് കുറച്ചുംകൂടി ഇംഗ്ലീഷിനോടുള്ളൊരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മലയാളം അവിടെ മോശമായിട്ട് കാണുന്നതല്ല ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം ഒരു വിഷയം തന്നെയാണ് ട്വൽത്ത് വരെ മലയാളം ഒരു മസ്റ്റ് വിഷയം തന്നെയാണ് ചെറുപ്പത്തിലെതന്നെ കുട്ടികളെ നമ്മൾ ആദ്യം പഠിപ്പിക്കണതും അക്ഷരങ്ങൾ അ ആ ഇ ഈ വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും എഴുതാനാണല്ലോ ഏതൊരു കൊച്ചു കുഞ്ഞും കേരളത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എഴുതുന്ന അക്ഷരം ആ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല